പക്ഷി നിരീക്ഷണമായിട്ടങ്ങനെ ചെയ്യാറില്ല എന്നാലും പക്ഷികളെ വ്യത്യസ്ത തരമുള്ള പക്ഷികളെ കാണുമ്പോൾ നമ്മള് ശ്രദ്ധിക്കാറുണ്ട് അതില് വ്യത്യസ്ത തരം കൊക്കുകള് എരുണ്ടകള് അതുപോലെ പ്രാവുകള് അങ്ങനെ ഒരുപാട് നമ്മുടെ പ്രദേശത്ത് ഒരുപാട് പക്ഷികള് വരാറുണ്ട് ഇപ്പം വേനൽകാലമൊക്കെയാകുമ്പോൾ നമ്മള് ഈ പക്ഷികൾക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം ചെറിയ ചെറിയ ടാങ്കുകളില് നിറച്ച് മതിലിൻ്റെ മുകളിലും ചെടികളുടെ ഇടയിലുമൊക്കെ വെക്കാറുണ്ട് അപ്പോൾ ഒരുപാട് പക്ഷികള് ഈ പഴവർഗ്ഗങ്ങളൊക്കെയുള്ളതുകൊണ്ട് ഒരുപാട് പക്ഷികള് വരാറുണ്ട് അവയൊക്കെ വന്ന് വെള്ളം കൂടിക്കാറുണ്ട് അതില് ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയത് എന്ന് വെച്ചാല് ഒരു മഞ്ഞയും കറുപ്പുമായിട്ട് ഉള്ളൊരു കിളി നല്ല ഭംഗിയാണ് നല്ല നീണ്ട ചുണ്ടൊക്കെ ഉള്ള നല്ല നീണ്ട വാലുള്ളത് അതായത് അതിൻ്റെ ഷേ ബോഡിയിലെ ശരീരത്തിലെ ഡിസൈൻ എന്ന് പറയുന്നത് കറുപ്പും മഞ്ഞയും കൂടി മിക്സ് ചെയ്തുള്ളൊരു ഒരു പ്രത്യേക ഭംഗിയാണതിനെ കാണാൻ അതിൻ്റെ പറന്നു വരുന്ന ഇരുപ് ഇരുപ്പും ഒരു പുള്ളിപോലെ അതായത് തലയിലൊക്കെ മഞ്ഞയും ബ്ലാക്കും കറുപ്പില് മഞ്ഞ പുള്ളിയാണോ മഞ്ഞയില് കറുപ്പ് പുള്ളിയാണോന്ന് നമുക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള തരത്തിലുള്ള ഒരു പ്രത്യേക തരം കിളിയാണ് വളരെ ഭംഗിയായിട്ട് തോന്നി അത് നമ്മടെ നാടൻ പക്ഷിയാണോ അതൊ പുറത്ത് നിന്നും വന്നതാണോ എന്നൊന്നും നമുക്കറിയത്തില്ല അതുപൊലെ ഇപ്പോൾ പണ്ടുകാലത്ത് കണ്ട് കണ്ടിരുന്ന പാടങ്ങളിലൊക്കെ കാണുന്ന കൊക്ക് എന്നൊരു പക്ഷി ആ പണ്ട് കണ്ട് കൊണ്ടിരുന്ന കൊക്കല്ല ഇപ്പോൾ ഉള്ളത് വളരെ ഉയരം തോന്നിപ്പിക്കുന്ന നല്ല വലിപ്പമുള്ള വിടർന്ന ചിറകുകളൊക്കെ ഉള്ള കൊക്കിനെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് അപ്പോൾ അത് വിദേശത്ത് നിന്ന് പറന്ന് വരുന്നതാണെന്നാണ് പൊതുവേയുള്ള ഒരു അഭിപ്രായം കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കൊക്കിനെ കാണാറില്ല കണ്ടിട്ടില്ല കാരണം പണ്ട് കാണുന്നത് പ്യുയർ വൈറ്റായിട്ടുള്ള നല്ല മെലിഞ്ഞൊരു കൊക്കും പിന്നെ ചെറിയൊരു ബ്രൌൺ ഷെയിഡുള്ള നല്ല വലിയൊരു കൊക്കുമായിരുന്നു രണ്ട് ടൈപ്പിനെയും ഇപ്പോൾ കാണാറില്ല ചെറിയ ഒരു ക്രീം കളറ് ഒരു ഓഫ് വൈറ്റ് കളറ് വൈറ്റ് കളറുള്ള കൊക്ക് അല്ലെങ്കിൽ അതിലൊരു ബ്ലാക്ക് ലൈനുള്ള ടൈപ്പിലെ കൊക്കുകള് നല്ല ഭംഗിയാണ് അവരെല്ലാം ഒന്നിച്ച് നിന്ന് പാടത്ത് നിന്ന് മീൻ പിടിക്കുന്നതൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്